സ്കൂളുകളിൽ പഠ്യേതര പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ പലതരം അതായത് ഇപ്പോൾ ചിത്രം വരയ്ക്കൽ പിന്നെ റൈറ്റിങ്ങ് റൈറ്റിങ്ങ് മത്സരം അതായത് നമ്മളെ നല്ല രീതിയിൽ അതായത് നല്ല കൈ അക്ഷരത്തിൽ എഴുതുന്ന അങ്ങനത്തെ മത്സരങ്ങൾ വയ്ക്കാറുണ്ട് പിന്നെ ചിത്ര രചന മത്സരങ്ങൾ അതിൽ നല്ലൊരു ചിത്രങ്ങൾക്കൊക്കെ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അതായത് പ്രോത്സാഹന സമ്മാനം അങ്ങനത്തെ പല സമ്മാനങ്ങളും നൽകുന്നുണ്ട് പിന്നെയുള്ളതെന്ന് വച്ചു കഴിഞ്ഞാൽ ഓട്ട മത്സരം അങ്ങനത്തെ എന്താ പറയുക കായിക മത്സരങ്ങളൊക്കെ ഉണ്ട് കായിക മത്സരത്തിൽ ഓരോ സമ്മാനം നേടുന്ന ആൾക്കാർക്ക് അതായത് ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് നേടുന്ന ആൾക്കാർക്ക് ട്രോഫിയും പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക കഴുത്തിൽ നമ്മൾ ഇടുന്നൊരു ഇത് ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ആ അങ്ങനത്തെ സാധനങ്ങൾ മെഡല് മെഡല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ അവർക്കൊരു പ്രചോദനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് എന്താ പറയുക ഈ കുട്ടികൾക്ക് ഇപ്പോൾ സ്പോർട്സ് അവർ ഇപ്പോൾ ഓരോ എന്താ പറയുക നമ്മളിപ്പോൾ ഓരോ പടി മുന്നോട്ട് നീങ്ങുന്തോറും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ചാൻസുകൾ കൂടുകയാണ് ചെയ്യുന്നത് സ്പോർട്സ് കോട്ട ഇപ്പം പത്ത് കഴിഞ്ഞ ആൾക്കാർക്ക് സ്പോർട്സ് കോട്ടയിലൊക്കെ എന്താ പറയുക അടുത്ത അഡ്മിഷനൊക്കെ കിട്ടണമെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ വേണമെങ്കിൽ കിട്ടും പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ചിത്രരചന ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ തുടക്കം തൊട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കത് മുന്നേറാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പം ഇങ്ങനത്തെ പദ്ധതികളൊക്കെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്